എൻ്റെ രണ്ടാമത്തെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ലാപ്ടോപ്പ് ആണ് ലാപ്ടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ടും ഇപ്പം ഇറങ്ങിയതില് വെച്ചിട്ട് നല്ലൊരു ലാപ്ടോപ്പ് ആണ് എൻ്റെ കയ്യിലിരിക്കുന്നത് എൻ്റെ കയ്യിലുള്ളത് ആസ്യുഎസിൻ്റെ സെൻഫോൺ മാക്സ് പ്രോയാണ് അപ്പം നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ലാപ്ടോപ്പ് നൽകുന്നുണ്ട് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് കൂടുതലായിട്ടും ഈ വർക്ക് കാര്യങ്ങളൊക്കെ ആണ് മെയിനായിട്ട് ചെയ്യേണ്ടി വരിക അപ്പം നല്ല രീതിയിലുള്ള വർക്ക് എക്സ്പീരിയൻസ് ഒക്കെ അതിനകത്ത് കിട്ടുന്നുണ്ട് കൂടുതലായിട്ടും നമ്മള് ചെയ്യുന്നതെന്ന് പറഞ്ഞ് കഴിഞ്ഞാല് നല്ല രീതിയിലുള്ള പ്രൊസസ്സർ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഹാങ്ങ് ആകാതിരിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക ചെയ്യേണ്ടി വരുന്നത് പിന്നെന്ന് പറഞ്ഞാൽ ഇത് ഞാൻ എടുത്തത് വൺ ടീ ബി എച്ച് ഡി എച്ച് ഡി ഐ മറ്റേ ഇതായിരുന്നു എടുത്തത് പക്ഷെ അതിന് നമ്മള് ഫോ ആദ്യം വാങ്ങിയ ടൈമില് ഞാന് ഓൺലൈനാണ് എടുത്തത് ഞാന് ആമസോൺ വഴിയാണ് ഞാന് ഇത് എടുത്തത് ഇ എം ഐ ഇട്ടിട്ടാണ് എടുത്തത് ഇത് സംഭവം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ആദ്യം നമ്മള് എച്ച് ഡി ഡി ആയതുകൊണ്ട് പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് തുറന്നു കഴിഞ്ഞപ്പത്തേക്കും പിന്നെ ഹാങ്ങാവാൻ തുടങ്ങി അതായത് ഓപ്പണായി വരുന്നത് തൊട്ട് ഫുൾ ഹാങ്ങാണ് സംഭവം എസ് എസ് ബി ആണെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ നല്ല രീതിയില് വരികയുള്ളൂ പക്ഷെ ഇത് തുറന്നു വരുമ്പോൾ തന്നെ ഫുൾ ലാഗ് കാര്യങ്ങള് ഒക്കെയാണ് അപ്പം

പക്ഷേ നെഗറ്റിവ് എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാല് ആ ഒരു പ്രശ്നം മാത്രമാണ് ഉള്ളത് അതായത് എച്ച് ഡി ഡി ആകുമ്പോൾ ഭയങ്കര ഹാങ്ങ് കാര്യങ്ങളൊക്കെയാണ് പിന്നെ വെയിറ്റ് ലേശം കൂടുതലാണ് വെയിറ്റ് കൂടുതലായതു നമുക്ക് കൊണ്ട് നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാകും പിന്നെ ഇതിൻ്റെ കൂടെ ഒരു സാധനം പോലെ കിട്ടിയിട്ടില്ല ആകെ കിട്ടിയത് ചാർജർ മാത്രമാണ് നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു ബാഗോ കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുകയാണെങ്കില് കുറച്ചും കൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നി